ഇപ്പോൾ വയനാട് ജില്ലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാക്കുന്നത് ഓരോ ചാരിറ്റബൾ ട്രസ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സംഘടനകൾ കാര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും മാർക്സിസ്റ്റ് പാർട്ടീടെ ഡീ വൈ എഫ് ഐൻ്റെ ചാ പരിപാടികളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അവരാണെങ്കിൽ നമ്മളെ ഇപ്പം നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അവിടെ കൂട്ടുനിൽക്കുന്നവർക്ക് ഫുഡ് കഴിക്കാനുള്ള എല്ലാകാര്യം പൊതിച്ചോറ് വിതരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളോണ്ട് അവർക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ നമ്മുടെ ഇവിടെന്ന് ഓരോ വീട്ടിന്നും പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മളെല്ലാവരും ഒത്തൊരുമ ഒരുമ ചാരിറ്റബൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റുകൾ കാര്യങ്ങളൊക്കെയുണ്ട് നമ്മളവിടേക്ക് ചെറിയ രീതിയിലാണെങ്കിലും നല്ലൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിവിടെത്തന്നെ പഴശ്ശി എന്താ പറയാ പഴശ്ശി രാജേൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്താ പറയാ തോണിച്ചാൽ അപ്പോൾ അവിടെ ഈ എന്താ പറയാ അനാഥക്കുട്ടികൾക്ക് ഒരു ദിവസം ഫുഡ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ചാരിറ്റബൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വായനാട്ടിലുണ്ട്